എൻ്റെ സെക്കൻഡ് പ്രൊഡക്ട് ഏതാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ക്രീമാണ് ഫേസ് ക്രീമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോളെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും കുട്ടികൾ അതായത് ഓരോ ദിവസവും കൂടുമ്പോഴും കൂടുതൽ കൂടുതൽ ക്രീം യൂസ് ചെയ്തു കൊണ്ടാണിരിക്കുന്നത് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരതൊന്നും അവർക്കെന്തുന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്ന് നല്ല വെളുത്തു കാണണം അതായത് നാലാളുകാണുമ്പോൾ ഓ അവളെന്താണ് കറുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഭയങ്കരമൊരു നെഗറ്റീവ് ഇതുതന്നെയാണ് അപ്പം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആ ഒരിതാണ് ചിന്തിക്കുന്നത് കാരണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നാലാൾ കാണുമ്പോൾ നാലാളുടെ മുൻപിൽ ഞാനേറ്റവും ഭംഗിയായിരിക്കണം അപ്പോൾ നല്ല ക്രീമും കാര്യങ്ങളൊക്കെ തേച്ചു വെളുത്തിട്ടുണ്ടെങ്കിൽ അവർക്കു റെഡിയാകുകയുള്ളൂ പക്ഷെ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകളും കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല കാരണമെന്തെന്നുവെച്ചാൽ അത് നമുക്ക് ഫേസ് ഈ ഫേസ് ക്രീമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അപ്ലൈ ചെയ്ത് നമ്മളെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമ്മുടെ അതായത് നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ കയറി ഉള്ളിലൊക്കെ കയറി നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും കുട്ടികളൊന്നും ചിന്തിക്കുന്നില്ല അവർ കുറേ വാരിവലിച്ചുതേക്കും പിന്നെ അപ്പോൾ പ്രശ്നമെന്നുവെച്ചാൽ ഇപ്പോൾത്തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെയും ടീ വിയൊക്കെ തുറന്നുകഴിഞ്ഞിനെൽ ഫേസ് ക്രീം അതായത് ഇൻസ്റ്റാഗ്രാമിലേതോ ഒരു ഫേസ് ക്രീം ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെയായി കരളിനെ ബാധിച്ചുവെന്നൊക്കെപ്പറയുന്നുണ്ട് അപ്പോളെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുമൊന്നു ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം